ഹലോ എൻ്റെ പേര് ജിബിൻ ഞാൻ വിളിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ട് പോകാനായിട്ട് ഒരു കാർ ആവശ്യമുണ്ട് ഞങ്ങൾ എട്ടോളം പേരുണ്ട് അവർക്കെല്ലാവർക്കും സ്വസ്ഥവായിട്ടും സമാധാനമായിട്ടിരുന്ന് പോകാൻ പറ്റിയൊരു കാറാണ് ഞങ്ങളന്വേഷിക്കുന്നത് ഞാൻ നോക്കുന്നത് ഇന്നോവ ടവേര അല്ലങ്കിൽ എർട്ടിക ഇങ്ങനത്തെ മൂന്ന് കാറുകളാണ് സെവൻ സീറ്റ് കാറുകളായിരിക്കും ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് എട്ട് പേരെന്നുദ്ദേശിച്ചത് അതിൽ മൂന്ന്പേര് കുട്ടികളാണ് പക്ഷേ ഒരാൾക്ക് അണ്ടർ ഫൈവ് ആണ് അഞ്ച് വയസ്സിൽ താഴെയാണ് അതുകൊണ്ട് തന്നെ കുട്ടി മാതാപിതാക്കളുടെ മടിയിൽ ഇരുന്നോളും ബക്കിയുള്ള ഏഴ് പേരെയാണ് ഞങ്ങൾ കൂട്ടുന്നുള്ളു അപ്പം ഏഴ് പേർക്ക് കംഫോർട്ടബിളായിട്ട് വളരെ സുസ്ഥിരവും സമാധാനവുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ക്യാബാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് നേരെ മൂന്നാറ് മൂന്നാറിൽ നിന്ന് തിരിച്ച് വട്ടവട വട്ടവടയിൽ നിന്ന് തിരിച്ച് മൂന്നാറ് വന്നിട്ട് പിന്നെ മറയൂര് മറയൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കനുയോജ്യമായൊരു വണ്ടി നി ഒരു സെവൻ സീറ്റ് വാഹനം ഞങ്ങൾക്ക് വിട്ട് തരണം അപ്പോൾ നിങ്ങൾക്ക് പ്രിഫറബിളായിട്ട് തോന്നുന്നൊരു വണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ ഏതൊക്കെ ആണെന്ന് ഞങ്ങൾക്ക് ഒന്ന് അയച്ച് തന്നാലും മതി ഞങ്ങളത് നോക്കിയിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുളള വണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്യാം